ഇപ്പോള് ഞങ്ങളുടെ ഗ്രാമത്തിൽ ആർക്കെങ്കിലും കയ്യോ കാലോ ഒടിഞ്ഞ് ആദ്യം നമ്മള് കൈ നോക്കുമ്പോള് നീരുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും കയ്യില് പൊട്ട് വല്ലതും ഉണ്ടോ എന്ന് പിന്നെ കയ്യുടെ കയ്യില് അല്ലെങ്കിൽ കാലില് ആ അവരുടെ വേദനയും ആ നീരും കാണുമ്പോൾ ചിലപ്പോൾ ഒടിവാണെന്ന് മനസ്സിലാവും സ്വാഭാവികമായിട്ടും ആദ്യം ചെയ്യുന്നത് അടുത്തുള്ള പ്രാഥമിക ആരോഗ്യത്തില് ആരോഗ്യ കേന്ദ്രത്തില് കൊണ്ടുപോകും അപ്പോള് അവര് അവിടെ ചികിത്സിക്കാൻ പറ്റാത്ത തരത്തിലാണ് ഒടിവും ഇതെല്ലാം ഉള്ളതെങ്കില് അവരവിടുന്ന് ചിലപ്പോള് താലൂക്ക് ആശുപത്രിയിലോട്ടോ അല്ലെങ്കിൽ വലിയ മറ്റ് ആശുപത്രിയിലോട്ടോ അവര് നമ്മളെ സജസ്റ്റ്യ്യും അപ്പോള് അങ്ങനെയുള്ള സാഹചര്യങ്ങളില് അവിടുന്ന് വലിയ ആശുപത്രികളിലേക്ക് കൊണ്ടുപോവുക അല്ല കൊണ്ടുപോകലാണ് പതിവ് പിന്നെ അവിടുന്ന് എക്സ്റേ എടുക്കും എക്സറേ എടുക്കുമ്പോള് ഒടിവിനെ കുറിച്ചും പൊട്ടലിനെ കുറിച്ചും കൃത്യമായൊരു ബോധം അവർക്കുണ്ടാവും അതിന് ശേഷം അതിന് വേണ്ട ചികിത്സ അതായത് കൃത്യമായിട്ടും പ്ലാസ്റ്ററിട്ട് റസ്റ്റ് എടുക്കും കൃത്യമായിട്ട് കൈ പിന്നെ അതായത് അനക്കാത്ത രീതിയിലാണ് വയ്ക്കേണ്ടതെങ്കിൽ ആ രീതിയില് തന്നെ കയ്യാണെങ്കില് കൈ അല്ലെങ്കിൽ കാല് ആ രീതിയില് തന്നെയായിരിക്കും അവരുടെ ചികിത്സയും എല്ലാം ചെയ്യുന്നത് പിന്നെ രോഗമുക്തിക്കായിട്ട് ചെയ്യുന്നത് എന്തെന്നു വച്ചുകഴിഞ്ഞാല് മരുന്ന് ഇതിൻ്റെ കൂടൊപ്പമുണ്ടാവും അപ്പോള് മരുന്ന് കൃത്യമായിട്ട് കഴിക്കും മൂന്നു നേരം കഴിക്കാനുള്ള മരുന്നാണെങ്കിൽ മൂന്ന് നേരം കഴിക്കും പിന്നെ കൈക്ക് വേണ്ട കൈക്കോ അല്ലെങ്കില് കാലിനോ വേണ്ട വിശ്രമം കൃത്യമായിട്ട് കൊടുക്കും ഇതുവഴി തന്നെയാണ് ഇവരുടെ ചികിത്സ അതായത് തിരിച്ച് രോഗമുക്തി ഇവർക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞാല് അതുപോലെ തന്നെയാണ് ഇപ്പോള് ഏറ്റവും പ്രധാനമായിട്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കേന്ദ്രത്തിൽ കൊണ്ടുപോകുകയെന്നുള്ളത് തന്നെയാണ് ചെയ്യുന്നത്